നേരിൽ കാണാൻ താല്പര്യപ്പെടുന്ന മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ ആ എനിക്ക് ഫസ്റ്റ് നേരിൽ കാണാൻ താത്പര്യം മമ്മൂട്ടി പിന്നെ മോഹൻ ലാൽ പൃഥ്വിരാജ് പിന്നെ മഞ്ജു വാരിയർ അങ്ങനെ നിരവധി താരങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും നമ്മൾ ഒരു സോഷ്യൽ മീഡിയേടെ ഒരു കാലത്ത് ജീവിക്കുന്നതു കൊണ്ട് ധ്യാൻ ശ്രീനിവാസനെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് അപ്പോൾ മമ്മൂട്ടിയെ കണ്ടാൽ എല്ലാവരും ചോദിക്കാൻ അമുക്കൊരു പേടിയാണെങ്കിൽക്കൂടി നമ്മളൊരു സെൽഫി എടുക്കും ഒരു സെൽഫി എടുക്കട്ടേയെന്നു ചോദിക്കും പിന്നെ ധ്യാൻ ശ്രീനിവാസനെ കണ്ടാലൽ മൂപ്പരോട് ഈ ഒരു കോമഡി അല്ലെങ്കിൽ ഈ അ ഇൻറ്റർവ്യൂവിലെ തമാശകളെ പറ്റിയൊക്കെ ചോദിക്കും പിന്നെ ബോളിവുഡിൽ കാണാൻ താത്പര്യം അമിതാ ബച്ചൻ പിന്നെ തമിഴ് സിനിമ ഇൻഡസ്ട്രിയൽ വിജയനെ കാണണം നമ്മളുടെ വിക്രമിനെ കാണണം രജനികാന്തിനെ കാണണം വിക്രമിന് ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാനുണ്ടാകുകയെന്നു പറയുന്നത് എപ്പോഴും ഒരു സെൽഫി എടുക്കട്ടേയെന്നുള്ളത് ചോദിക്കാനായിരിക്കും എൻ്റെ മനസ്സ്